അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു ഇന്ത്യൻ കായിക ഇനമാണ് ചതുരംഗം ചെസ്സ് ചെസ്സിനിപ്പം അധികം പ്രാധാന്യമൊന്നും നൽകാറില്ല രണ്ട് പേർ ഒത്ത് മാത്രം കളിക്കുന്ന കളി ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ചെസ്സിന് വളരെയധികം പ്രാധാന്യം ഒന്നും മറ്റു മത്സരങ്ങൾ അതുപോലുള്ള ചെസ്സ് ഫെഡറേഷൻ നടത്തുന്ന മത്സരം മാത്രം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ അല്ലാതെ ഒളിമ്പിക്സിലോ ഏഷ്യൻ ഗെയിംസിൽ പോലും ചെസ്സിന് വലിയ പ്രാധാന്യം നൽകാറില്ല ചെസ്സിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയാണ് ഏറ്റവും മികച്ച് നിൽക്കുന്നത് ഇന്ത്യക്കാർ കണ്ടുപിടിച്ച ഗെയിം എന്നാണ് ചെസ്സ് അറിയപ്പെടുന്നത് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ബുദ്ധിശക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കൗ കൗശലത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കളി ആയതുകൊണ്ടാവാം അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നാലും ലോകത്തിൻ്റെ വിവിധ ഭാഗ രാജ്യ ഭാഗങ്ങളിൽ ചെസ്സ് പ്രശസ്തമാണ് അവിടെ എല്ലാവരും കളിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒളിമ്പിക്സോ അതുപോലുള്ള കാര്യങ്ങളാ അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും ചെസ്സിന് വലിയ പ്രാധാന്യം നൽകി കണ്ടിട്ടില്ല അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടണം എന്നാഗ്രഹിക്കുന്ന മറ്റൊരു കായിക ഇനമാണ് കബഡി അതും ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രം പ്രാധാന്യം കിട്ടുന്ന ഒരു കളിയായിട്ടും മാറിയിരിക്കുകയാണ് കബഡി കബഡിക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കബഡിയും അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ളൊരു കലയായി വളരണ വളർന്ന് വരേണ്ട സ് സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു ബാസ്കറ്റ്ബോളിന് കരീബിയൻ അമേരിക്കൻ നാടുകളിൽ ഉള്ള പ്രാധാന്യം പോലെ തന്നെയാണ് കബഡിക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉള്ള പ്രാധാന്യം പക്ഷേ എന്തുകൊണ്ടോ ഏഷ്യൻ രാജ്യ അന്താരാഷ്ട്ര തലത്തിൽ കബഡി ഒരു വലിയ കായിക ഇനമായിട്ട് ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഒളിമ്പിക്സ് പോലുള്ള വലിയ കായിക മേളകളിൽ കബഡി ഉൾപ്പെടുത്തിയിട്ടുമില്ല കബഡിയും ചെസ്സും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കേണ്ട ഇന്ത്യൻ കായിക ഇനങ്ങളായിട്ടാണ് കരുതുന്നത് അതുപോലെ തന്നെ കൂടുതൽ പ്രാധാന്യം ലഭിക്കേണ്ട മറ്റൊരു കായിക ഇനമാണ് ഹോക്കി ഹോക്കിക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രാധാന്യമുണ്ട് എങ്കിലും വളരെയധികം രാജ്യങ്ങളൊന്നും ഹോക്കിയിലേക്ക് ഇതുവരെ കടന്ന് വന്നിട്ടില്ല ഇന്ത്യയുടെ ദേശീയ ഗെയിമുകളിൽ ഒന്ന് കബഡിയും ഒന്ന് ഹോക്കിയുമാണ് ഹോക്കിക്ക് കിട്ടിയിരിക്കുന്ന പ്രാധാന്യത്തിൻ്റെ പകുതി പോലും കബഡിക്ക് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കബഡി കളിക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യം കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും അത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് കായിക താരങ്ങൾക്ക് ഏഷ്യയിലെ കായിക താരങ്ങൾക്ക് മികച്ച രീതിയിൽ വളർന്ന് വരാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ ചെസ്സിനും കബഡിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ മത്സരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് അതിൽ കൂടുതൽ മികവ് പുലർത്താനാവും അത് വഴി ഇന്ത്യയ്ക്ക് കൂടുതൽ മെഡൽ നേടാനാകും സാമ്പത്തികമായിട്ട് ധാരാളം അവസരങ്ങൾ കിട്ടും അങ്ങനെ ഈ കായിക ഇനങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും ഇന്ത്യ കായിക രംഗത്ത് ഒരു ശക്തിയായി വളരുകയും ചെയ്യും ചെസ്സും കബഡിയും ഹോക്കിയും ഹോക്കി ഒരു പരിധി വരെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടുതൽ മത്സരങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യ കൂടുതൽ പ്രാ പ്രാവീണ്യം കാണിക്കുന്നൊരു ഗെയിം ആണ് ക്രിക്കറ്റ് പക്ഷേ പത്ത് രാജ്യങ്ങൾക്ക് മാത്രമേ ടെസ്റ്റ് പദവി ഉള്ളൂ ബാക്കിയെല്ലാം അസ്സോസിയേറ്റഡ് രാജ്യങ്ങളാണ് അസ്സോസിയേറ്റഡ് രാജ്യങ്ങളിൽ നൂ നൂറിലധികം അസോസിയേറ്റഡ് രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര അംഗീകാരം ഇതിന് അധികം ലഭിച്ചിട്ടില്ല കാരണം കരീബിയൻ നാടുകളിൽ പോലും ക്രിക്കറ്റിൻ്റെ രാജാക്കന്മാർ ആയിരുന്ന കരീബിയൻ നാടുകളിൽ പോലും ഇപ്പോൾ ബാസ്കറ്റ്ബോളിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫുട്ബോൾ ലോകത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലായിടത്തും പ്രാധാന്യമുള്ളൊരു കളിയാണ് ഫുട്ബോൾ ആ രംഗത്തേക്കൊന്നും ക്രിക്കറ്റ് ഇത് വരെ വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഉണ്ടായാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത് കൂടുതൽ നല്ലതായിരിക്കും